എൻ്റെ പ്രദേശത്തെ ഏറ്റവും പ്രശസ്തമായ കല അല്ലെങ്കിൽ കരകൗശല മേഖല എന്ന് പറഞ്ഞാൽ ഖാദിയാണ് ഖാദി കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ് അപ്പോള് എൻ്റെ വീടിനടുത്ത് ഖാദിക്ക് വേണ്ടിയിട്ട് ഒരു ഒരു പ്രൊഡക്ഷൻ അത് ഉൽപാദിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നൂറിൽ പരം സ്ത്രീകൾ ദിവസം വരികയും ജോലി ചെയ്യുകയും പോകുന്നതുകൊണ്ട് അത് ഖാ ഖാദിയുടെ മാത്രമല്ല ഖാദിയിലിക്ക് വേണ്ടി കേരളത്തിൻ ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും കുറച്ച് സബ്സീഡികളും ചെയ്യുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളുമൊക്കെ ഗവണ്മെൻറ്റ് വഴി നടപ്പിലാക്കുന്നുണ്ട് മാത്രമല്ല അതേ സ്ഥാപനത്തോട് ചേർന്ന് തന്നെ ഒരു ബോർമ്മയുണ്ട് ബോർമ്മയെന്നു പറഞ്ഞാല് ഭക്ഷണം ഉണ്ടാക്കി വിൽക്കുന്നത് പ്രത്യകിച്ച് പലഹാരങ്ങൾ പലഹാരങ്ങളുണ്ടാക്കി സ്ത്രീകൾ തന്നെയാണ് അതിന് മുൻഗണന എടുക്കുന്നത് സ്ത്രീകളതെടുത്ത് കൊണ്ടുപോയി ബേക്കറികളിൽ കൊണ്ടു വിൽക്കുന്നത് അതിൻ്റെ ശാ പൈസ കുറച്ച് എത്രയാണെന്നുവച്ചാല് അവര് തന്നെ പങ്കിട്ടെടുക്കുകയും ചെയ്യുന്നുണ്ട് ഭക്ഷണമുണ്ടാക്കുന്നതുമൊരു കലയാണല്ലോ അപ്പോള് ഇതും വളരെ പ്രധാ വളരേ ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ അവരത് ഉപയോഗിക്കുന്നുണ്ട് അതോടൊപ്പം ചെ തന്നെ അതോട് ചേർന്ന് തന്നെ ഒരു ബ്യൂട്ടിഷൻ കോഴ്സും അവിടെയുണ്ട് അപ്പോള് ഇതും അത് ബ്യൂട്ടിഷൻ ചെയ്യുന്നതും ഒരു കലയാണ് അപ്പോള് ഈയൊരു പ്രോഗ്രാമിലൂടെ കൂടെ ആൾക്കാർക്ക് ആൾക്കാരിലേക്ക് കുറച്ചു കൂടി കടന്നെത്താൻ കലയ്ക്ക് സാധിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കുന്നതിനായിട്ട് അവർക്ക് വേണ്ടിയിട്ട് കുറേ സബ്സീഡികള് അവർക്ക് വേണ്ടിയിട്ട് കുറേ പ്രോഗ്രാമുകളും ഗവണ്മെൻറ്റ് തലത്തിൽ ലഭ്യമാകുന്നുണ്ട് സബ്സീഡികളെന്ന് പറഞ്ഞാല് പ കലയില് ഓരോ കലാമേഖലയും എടുത്ത് നോക്കിയാൽ തന്നെ ആ കലാമേഖലയിൽ നിൽക്കുന്നവർക്ക് അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കല അന്യം നിന്ന് പോകാതിരിക്കാനായിട്ട് ഗവണ്മെൻറ്റ് വഴി വളരെയധികം പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് അത് വളരേ വളരെ ഉപകാരപ്രദമായി വളരെ നല്ല രീതി തന്നെ അത് മുന്നോട്ട് പോകുന്നുമുണ്ട് ഇതാണ് ഇ ഇതിത്രയാണ് എൻ്റെ നാടിൻ്റെ കല കരകൗശല മേഖലയെപ്പറ്റി പറയാനുള്ളതും ആ ഒരു ആൾക്കാർക്ക് അവർക്ക് ഇമ്പകരമായ രീതിയിലാ കലെ എത്താനും അതിനെ ആസ്വദിക്കുവാനും ആൾക്കാർക്ക് സാധിക്കുന്നുമുണ്ട്